ഇപ്പോൾ നിലവിലുള്ള ചെടികളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് റോസുണ്ട് പിന്നെ ഡാലിയയുണ്ട് അങ്ങനത്തെ പല രീതിയിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടുവളപ്പിലുണ്ട് കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാല് നമുക്ക് ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വെറുതെ നട്ട് വച്ചിട്ട് അത് വളർന്ന് വരുമ്പോൾ ഒരു പൂവായിട്ട് വരുന്നതൊന്നുമല്ല നമ്മുടെ മനസ്സിനതൊരു കുളിർമയും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കാര്യമാണ് ചെടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് പല രീതിയില് നമുക്ക് ഉല്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കിപ്പോൾ ഇപ്പോൾ ബെഡ്ഡ് തയ്യാറാക്കാം പിന്നെ അതിൻ്റെ കമ്പ് കൊണ്ടുപോയിട്ട് നട്ടു കഴിഞ്ഞാല് നമുക്ക് അതിൽ നിന്ന് വേറെ നമുക്ക് ചെടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡാലിയയെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതിൻ്റെ ഒരു കിഴങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മള് കൊണ്ട് നട്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതൊരു ചെടിയായിട്ട് വരികയുള്ളു നമ്മളിടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കണം ആ ഒരു പ്രശ്നം മാത്രമേയുള്ളു നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മളെന്നും രാവിലേയും വൈകുന്നേരവും നനച്ച് കൊടുത്താൽത്തന്നെ അത് അത്യാവശ്യം നല്ല രീതിയില് വളർന്ന് വരുന്ന ചെടികളാണ് ഡാലിയയും റോസയും അങ്ങനത്തെ ചെടികളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പല രീതിയിലുള്ള ചെടികളും നമ്മൾക്കിപ്പോൾ എല്ലാ സ്ഥലത്തും കിട്ടും ഓരോ നമ്മളിപ്പോൾ ഓരോ വീടുകളിലൊക്കെ പോയിട്ട് ഓരോ കമ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നട്ട് അതിൽ നിന്ന് വളർന്ന് വരുന്ന പല രീതിയിലുള്ള ചെടികളൊക്കെയുണ്ട്